ഇപ്പോൾ ഒരാൾക്ക് ആരോഗ്യപരവുമായിട്ടുള്ള പ്രോത്സാഹനം മാത്രമല്ലല്ലോ ഇതൊരാൾക്ക് ഒരു ഏതൊരു കളി സ്പോർട്സിലാണെങ്കിലും ജയിക്കാൻ പറ്റുന്നത് ഒരാൾക്ക് ഒരാൾക്കെന്നല്ല ഒരു ടീമിനായെങ്കിലും എന്തിനായെങ്കിലും ബാക്ക് സപ്പോട്ട് ആൾക്കൊരു മെൻ്റലി ഭയങ്കര സപ്പോർട്ടായിട്ട് കിട്ടും ഇപ്പോൾ ഒരു ടീമായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കുമല്ലോ അത് ഫേസ് ചെയ്യുന്നുണ്ടാവുക എല്ലാവരും നോക്കുന്നുണ്ടാവും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും തോക്കുമോ ജയിക്കുമോ ഇതെല്ലാം ടെൻഷനൊക്കെ ആയിട്ടാണ് ആൾക്കാർ അടുത്തുണ്ടാവുക അപ്പോൾ ആളെന്തെല്ലാമെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് കൊണ്ടുണ്ടാവും എന്താവും എന്താവും ആളും ചിന്തിച്ചുകൊണ്ടുണ്ടാവും ആൾക്കാരും കളി കാണുന്നുള്ള ആൾക്കാരും ചിന്തിച്ചുകൊണ്ടുണ്ടാവും കാണികളും ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടുണ്ടാവും എന്താവും എന്താവും എന്താവുമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് അതിൽനിന്ന് ഒരു മാറ്റം വരാൻ മാത്രമല്ല ആൾക്കൊരു ഇൻറസ്റ്റ് വരണമെങ്കിൽ ബാക്ക് സപ്പോർട്ട് മെയിനായിട്ട് വേണം ഇപ്പോൾ ഒരു ടീമായിട്ട് കളിക്കുന്നുണ്ട് ഒരു ഫുട്ബോള് കളിക്കുന്നുണ്ട് ഒരു ഫുട്ബോൾ കളിക്കുമ്പോഴേക്ക് ആ ടീമിലുള്ള എല്ലാവരും നല്ലതുപോലെ കളിക്കും ചെയ്യും അതല്ലാണ്ട് ആ ആൾക്ക് ഇത് എങ്ങനെയാണെന്നുവെച്ചാൽ കളിക്കുന്ന പ്ലയേഴ്സിന് ഏറ്റവും കൂടുതൽ നല്ല ഇത് നമ്മളെ ആരോഗ്യം കിട്ടുന്ന ഒരു കളിയാണ് ഫുട്ബോളെന്ന് പറയുന്നത് ആ ആൾക്ക് എങ്ങനെയായാലും ഇങ്ങനെ ഓടിയിട്ടായാലും കാലിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും ഗോളി നിൽക്കുന്ന ആൾക്ക് കൈക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും എങ്ങനെ വേണമെങ്കിലും ഓടാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും ശ്വാസം നല്ലത്പോലെ എടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും ഇതെല്ലാം ഇതങ്ങനെ അല്ലെങ്കിൽ ആ ഒരു കളീൻ്റെ ഇതിൽ വരുന്ന ഒരിതാണ് ടീമായിട്ടുള്ള ഒരു സ്പിരിറ്റാണ് അപ്പോൾ ആ ആൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് ഫേസ് ചെയ്യണമെങ്കിൽ നെഗറ്റീവായിട്ട് എന്തായാലും ഫേസ് ചെയ്യാതിരിക്കില്ല ഇപ്പോൾ ഇത് ഓപ്പോസിറ്റ് ടീം രണ്ട് ഗോള് ഇട്ടെങ്കിൽ ഒരു ചിലപ്പോൾ സീറോ ആണെങ്കിൽ സീറോ എങ്കിൽ ഈ ഒരു എന്താക്കും എന്താക്കും എന്താക്കും അയ്ക്കു ഇതാണല്ലൊ അവിടെ പ്രെഷറ് ഓവർ പ്രെഷറാവും അതിൽനിന്നാ പ്രെഷറിൽനിന്ന് പിന്നെയും പോയിട്ട് ഒന്ന് കുറച്ച് റിലാക്സേഷൻ ആവണമെങ്കിൽ ഒരു ഗോളി കൂടി ഓലോട് മൈക്കുവെങ്കി കുറച്ചും കൂടി റിലാക്സേഷൻ ഉണ്ടാവും അപ്പം അത് തന്നെ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു മെൻ്റലി ഹെൽത്ത് കുറച്ചും കൂടി നമ്മളെക്കൊണ്ട് കഴിയുമെന്ന് സാധിക്കുന്നതാണ് നമുക്കിപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയില്ലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നാരും കളി കളിക്കണ്ടതാ കാര്യമില്ലല്ലോ നമ്മളെക്കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ച് എന്ത് ചെയ്താലും നമ്മളെക്കൊണ്ട് കഴിയും കഴിയില്ലായെന്ന് വിചാരിച്ചാൽ ഒന്നും കഴിയില്ല അത് അതിപ്പോൾ നമ്മളെ ഉസ്സൈൻ ബോൾട്ട് ആയതുകൊണ്ട് ഉസ്സൈൻ ബോൾട്ടിപ്പോൾ ഇത് ഇത് കാലിന് വയ്യാതെയുണ്ടായ ഒരാളല്ലല്ലോ ആയെന്ന് ആള് നല്ലതുപോലെ ഓടി ഓടി ഓടിയിട്ട് കുറേക്കാലത്തെ കഷ്ടപ്പാടിലാണ് ഒരാൾക്ക് ഒരു സക്സസ്സ് ഉണ്ടാവുക അല്ലാണ്ട് ഒറ്റയടിക്ക് എത്ര ആയാലും സക്സസ്സ് ഉണ്ടാവാൻ പാടില്ല സക്സസ്സ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മളെ റൊണോൾഡോ ആയെങ്കിൽ റൊണോൾഡോന്റെയെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ റൊണോൾഡോയില് ഫുട്ബോള് കളിക്കുന്ന ടൈംമ് ആൾക്ക് കാലിനെന്തോ സുഖമില്ല കാൽ ഓപ്പറേഷൻ ആക്കിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായ ഒരാളാണ് റൊണോൾഡോ ആ ആളൊരു മോട്ടിവേറ്റാക്കിയിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു റോൾ മോഡല് ആക്കിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരാളാണ് ആ ആള് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആ ആളെ രാജ്യം തന്നെ ആ ആളെ താഴ്ത്തി പറഞ്ഞ ഒരു രാജ്യമാണ് അതിൽ നിന്ന് ആ ആളെ രാജ്യത്ത് ആ ഒരാളെ പേരിൽ ക്രിസ്റ്റ്യാനോ റൊണോൾഡോയുടെ പേരിൽ ഒരു എയർപോർട്ട് തന്നെ വരുന്നുണ്ടെങ്കിൽ ആ ആള് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് കഷട്ടപ്പാട് മാത്രമല്ല ആ കഷ്ടപ്പാടിനുള്ള റിസൽട്ടും കൂടി അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഒരാൾക്കിപ്പോൾ ഇത് അതിനുള്ള ഇത് റീപ്ലേ വരാൻ കിട്ടിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ആള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല സ്വന്തമായിട്ട് മാത്രമല്ല ഒരു ടീം സ്പിരിറ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ആ ആള് ഒരു പേര് ഇത് നല്ലതുപോലെ നാട് മുഴുവനും ഇപ്പോൾ ആളൊരു ഇന്ത്യക്കാരനല്ല പക്ഷെ ഇന്ത്യയിൽ ഒരു മൂലക്കുള്ള ഇന്ത്യയിൽ ഒരു കേരളത്ത് ഒരു മൂലക്കുള്ള ഒരു കാസർഗോഡ് എന്ന് ജില്ലയിലത്തെ ഒരാൾക്ക് ഈ റൊണോൾഡോനെ പറ്റിയിട്ട് അറിയാനും ആ ഒരു ആളെ റോൾ മോഡലാക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ആള് ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കഷ്ടപ്പാടിന് മാത്രമുള്ള ഒരു റിസൽട്ടാണ് അപ്പം ആ ഒരു കഷ്ടപ്പാടിനുള്ള റിസൽട്ട് അയ് ആ ആളുണ്ടാക്കിയതാണ് അങ്ങനെ അല്ലെങ്കിൽ ആ ആള് ട്രെയിനിങിലൂടെയും കഷ്ടപ്പാടിൽ കൂടീട്ടും ഇത് ദിവസേന ഉള്ള ട്രെയിനിങ്ങിൽ കൂടി ആയിട്ടായിരിക്കും ഉണ്ടാവുക അതല്ലാണ്ട് ഈ എ സി റൂമിലിരുന്നിട്ടും അതല്ലെങ്കിൽ റസ്റ്റ് എടുത്തിട്ടും അങ്ങനെ ഒന്നും അല്ല ആൾക്കുള്ള റിസൽറ്റ് വന്നിട്ടുണ്ടാവുക നല്ലതുപോലെ വെയിലത്ത് ഓടി പാഞ്ഞ് കളിച്ചിട്ട് അതിൽനിന്ന് തന്നെയാണ് ആൾക്കുള്ള റിസൽട്ട് വന്നതായെങ്കിലും നല്ലൊരു ഈ ക്രിസ്റ്റ്യാനോ റൊണോൾഡോ സി അർ സെവനെന്നുള്ള പേര് വരാൻ തന്നെ കാരണം അതല്ലെങ്കിൽ ആ ഒരാളെ പേരിൽ ഒരു എയർപോർട്ട് തന്നെ വരണമെങ്കിൽ ആ ഒരാൾ എത്രമാത്രം ഇതായിട്ടുണ്ടാവും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരാൾക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റുമോ ഇതിപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഏത് കളി ആയെങ്കിലും ഇപ്പോൾ നല്ലതുപോലെ കളിക്കുന്ന ഒരു ഒരു ടീമിന് ആ ഒരു ടീമിന് ഏറ്റവും നല്ലത് ബാക്ക് സപ്പോർട്ടാണ് മെയ്നായിട്ടും വേണ്ടത് അതല്ലാണ്ട് ഇനി ബാക്ക് സപ്പോർട്ട് ഉണ്ടാവുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടീമിലത്തെ ആൾക്ക് മെൻ്റലി ഇൻ്ററെസ്റ്റെഡാവും എന്ത് എന്നെക്കൊണ്ട് സാധിക്കും ഞങ്ങളെ ടീമിനെക്കൊണ്ട് സാധിക്കും അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരാൾക്ക് ആ ഒരു ടീമിനെ വിജയിപ്പിക്കാൻ സാധിക്കും അതല്ലാണ്ട് ഇങ്ങനെ നമ്മളെക്കൊണ്ട് കഴിയില്ല നമ്മളെക്കൊണ്ട് ഒന്നും സാധിക്കില്ല അങ്ങനെ എല്ലാം വച്ചിട്ട് ആ ആൾ ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് എന്തായാലും സാധിക്കില്ല ആ ഒരു ടീം എവിടേയും എത്താനും പോകുന്നില്ല ആ ഒരു ടീം സ്റ്റേറ്റ് ലെവലിലേക്കായെങ്കിലും നല്ലതുപോലെ കളിച്ചിട്ട് നാഷനൽ ലെവലിലേക്കായെങ്കിലും കളിക്കണമെങ്കിൽ ആ ഒരാൾക്ക് ഏതൊരു ഇതിലും നല്ലതുപോലെ ഒരു ട്രെയിനിങ്ങും നല്ലതുപോലെ ആ ഒരു കളീനെപ്പറ്റിയിട്ട് അറിയാനും നല്ലതുപോലെ കളിക്കാനും എല്ലാം ഉള്ള ഒരു അറിവു വേണം ആ അറിവ് വേണമെങ്കിലും ആ ഒരാൾക്ക് കളിക്കാനുള്ള ഒരു ഇൻ്ററെസ്റ്റ് വേണം ആ ഇൻ്ററെസ്റ്റിന് ഏറ്റവും വേണ്ടത് സപ്പോട്ടേർസാണ് സപ്പോട്ടാണ് ഒരാളിപ്പോൾ എത്ര ആളും ഏതൊരു ഒരാൾ നല്ല രീതിയ്ക്ക് പോന്നുണ്ടെങ്കിൽ അയാളെ താഴ്ത്തി പറയാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവേഴ്സ് ഉണ്ടാവും ഹെയ്റ്റേഴ്സ് ഉണ്ടാവും അപ്പം അതിൽ നിന്നെല്ലാം അയാൾ അതൊന്നും ചിന്തിക്കാണ്ട് അതൊന്നും കെയറാക്കാണ്ട് അതൊന്നും സാരമില്ല എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് കഴിയും എന്നെല്ലാം വിചാരിച്ചിട്ട് ആ ഒരാൾ പിന്നെയും പിന്നെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ മുന്നോട്ടേയ്ക്ക് വച്ചെങ്കിൽ ആ ഒരാൾ സക്സസ്സിലേക്കല്ലാണ്ട് എത്തില്ലല്ലോ അതിപ്പം ബിസിനസ്സിലായെങ്കിലും സ്പോർട്സിലായെങ്കിലും അത് ഏതൊരു കാര്യത്തിലായെങ്കിലും അങ്ങനെയേ ഉണ്ടാവു അതല്ലാണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല ഓറ് എന്തുവാണെന്ന് പറയട്ടെ ഓറ് പറയുന്നതെല്ലാം സത്യം തന്നെയെന്നു വിചാരിച്ചിട്ട് ഈ ബാക്ക് കളിയാക്കിയിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുള്ള ഓറോട് എന്നെക്കൊണ്ട് കഴിയില്ലായെന്നു പറഞ്ഞിട്ട് ഓറ് നിൽക്കുന്നുണ്ടെങ്കിൽ ഓറെക്കൊണ്ട് കഴിയുകയേ ഇല്ല എത്രകാലം എങ്കിലും എനിയെത്ര ട്രൈ ആക്കിയെങ്കിലും ആ ഓറെക്കൊണ്ട് കഴിയില്ല ആ ഒരു ടീം ജയിക്കാനും പോകുന്നുണ്ടാവില്ല ആ ഒരു ടീം ഇനി എവിടെ എത്താനും പോകുന്നുണ്ടാവില്ല അതിനു പകരായിട്ട് ആ ഒരാൾക്ക് നല്ലതുപോലെ കളിക്കാനും നല്ലതുപോലെ ഒരു ഇൻ്ററെസ്റ്റായിട്ട് നല്ലതുപോലെ സപ്പോട്ടേർസായിട്ട് കളിക്കാനും ഇനി എവിടെ ജയിക്കാനും സെലക്ഷൻ കിട്ടാനും നല്ലതുപോലെ വേറെ ഒരു ടീമിലേയ്ക്ക് സ്റ്റേറ്റ് ലെവലിലേക്കായാലും നാഷനൽ ലെവലിലേക്കായെങ്കിലും ഏതൊരു ടീമിലേയ്ക്ക് എത്തണമെങ്കിലും ആൾക്ക് വേണ്ടത് എന്താ നല്ലതുപോലെ മെൻ്റൽ ഹെൽത്തും ഇത് ആയത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്തുമാണ് വേണ്ടത് നല്ലൊരു നല്ലൊരു ഉഷാറാണ് വേണ്ടത് ആ ഉഷാറിന് വേണ്ടിയിട്ട് ആൾക്ക് ഒറ്റയടിക്കൊന്നും കഴിച്ചിട്ടും അതാക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടും ഫുഡ്ഡ് കഴിച്ചിട്ടും അങ്ങനെയൊന്നും ആൾക്ക് എത്ര ആയാലും ഇപ്പം ഇതു ഒര് വിജയത്തിലേയ്ക്ക് ഒരു മത്സരത്തിൽ വിജയിക്കാനൊന്നും പറ്റില്ല അതിനു മെയ്നായിട്ട് വേണ്ടത് എന്താ ട്രെയ്നിങ്ങാണ് ആ ട്രെയ്നിങ്ങ് ആണ് ആ ട്രെയ്നിങ്ങ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ നോക്കാം അതല്ലാണ്ട് ആൾ എവിടെ എത്താനൊന്നും പോകുന്നില്ല